ഹലോ ഗൈഡല്ലേ ആ അത് തന്നെ അത് ഞാന് ഞാൻ ഇപ്പം ഇന്ന് രണ്ട് മണി ആകുമ്പോഴത്തേന് നെടുമ്പാശ്ശേരി ഏര്പോട്ടിൽ വരും അവിടുന്ന് എനിക്ക് ശ്രീപദ്മനാഭസാമീ ക്ഷേത്രത്തിലാണ് പോകേണ്ടത് അതിന്റെ എങ്ങനാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യുമോ ഇവിടെ വന്ന് അതോ ഞാൻ ഇവിടുന്ന് ടാക്സി വിളിച്ച് തിരുവനന്തപുരത്ത് എത്തണോ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരുമോ അതെ ഓക്കെ ശരി റെയില്വേ സ്റ്റേഷനിൽ വന്നിട്ട് വന്നിട്ട് അതിന്റെ അവിടുത്തെ അമ്പലത്തില് കയറുന്ന കാര്യങ്ങൾ അവിടുത്തെ ആചാരങ്ങളൊക്കെ എനിക്ക് തീരെ അറിയില്ല പിന്നെ അവിടുത്തെ പിന്നെ വേഷവിധാനങ്ങൾ മീന്സ്സ് എന്തുവാണ് ചുരിദാറിടാന് പറ്റുമോ അതോ സാരി മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് സാരിയെ പറ്റുകയുള്ളൂന്ന് സാരി ഉടുക്കാനൊന്നുമല്ല അതിനുവേണ്ടി നമ്മളെ ഹെല്പ്പ് ചെയ്യാൻ ആരെങ്കിലും കാണുമോ കൂടെ

സാരി ഉടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല താമസസൗകര്യം

അറിയാവുന്ന ആരുമില്ല നമുക്ക് താമസ സൗകര്യം വേണം പിന്നെ നമുക്ക് വെജിറ്റബിള്സ് വെജിറ്റേറിയന് ഫു ആഹാരങ്ങളാണ് വേണ്ടത് അതിനൊക്കെ ഉള്ള ഇത് ചെയ്ത് തരണം പിന്നെ ഫസ്റ്റ് ആദ്യമേ എനിക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പദ്മനാഭസ്വാമി ക്ഷേത്രം സന്ദര്ശിക്കുക അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിത്തരണം അത്കഴിഞ്ഞിട്ട് ബാക്കി തിരുവനന്തപുരത്ത് മറ്റ് കാണാന് ഏതെല്ലാം സ്ഥലങ്ങളുണ്ട് അതിനെ കുറിച്ചൊരു ചെറിയ ലഘു വിവരണം തന്നിട്ട് അതൊക്കെ കണ്ടിട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ പറയാമല്ലോ ട്രെയിനൽ ട്രെയ്നല്ലാതെ വേറെ എന്തുവാണ് ഇവിടുന്ന് ടാക്സി തന്നെ വിളിച്ചാൽ എത്ര മണിക്കൂറ് യാത്ര ചെയ്യാന് കാണും ടാക്സി ആകുമ്പം നമ്മൾ പ്രോപ്പെര് സ്ഥലം സ്ഥലങ്ങൾ കൊണ്ട് ഇറക്കുകയും ചെയ്യുമല്ലോ പിന്നെ അതിന്റെ എത്ര പൈസയാകും അതിന്റെ ചാര്ജ്ജ് എത്ര ചാര്ജീടാക്കും എന്നൊക്കെ ഒരു ഒന്നു പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു

അ അതെ ഓക്കെ എന്നാൽ ഞാൻ തന്നെ കണ്സിർ ചെയ്യാം ഞാന് വിളിക്കാം ഞാൻ നെടുമ്പാശ്ശേരിലെത്തിയിട്ട് ഞാന് കോള് ചെയ്യാം ശരി ഓക്കെ